ഞാനൊരു പവർ ബാങ്ക് വാങ്ങിയിരുന്നു പവർ ബാങ്ക് നല്ലതല്ല ഇരുപതിനായിരം റുപ്പിക വെറുതെ എൻ്റെ കയ്യീന്നു പോയതല്ലാണ്ട് വേറൊരു ഉപകാരം ഉണ്ടായിട്ടില്ല അതുപോലെത്തന്നെ പവർ ബാങ്ക് ഞാനൊരു തവണ കുത്തിയിട്ടപ്പോൾ ചാർജർ ചെയ്തപ്പോൾ പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ച് എൻ്റെ കൈയിൻ്റെ ഒരു സൈഡ് പൊള്ളുക ഒക്കെ ചെയ്തിരുന്നു പവർ ബാങ്ക് അപകടം കൂടിയ സാധനം ആണ് അതുപോലെ അതിന്റെ ചാർജർ വള്ളി ഏതു സമയവും പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് ചാർജറിൽ കയറുന്ന പക്ഷം ഏത് സമയവും പൊട്ടാനുള്ള ചാർജറ് കൂടുതലാണ് നമ്മളെ ഫോൺ കംപ്ലെയിൻറ്റ് ആവാനും കൂടുതലാണ് ചാർജ് എൻ്റെ ഫോൺ അങ്ങനെയാണ് പോയത് ഐ ഫോൺ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് പോയി അത് എൻ്റെ വെറുതെ ആ പൈസ പോയി വാങ്ങിയിട്ട് ഒരു മാസം പോലും ആയില്ലായിരുന്നു പവർ ബാങ്ക് കുത്തിയിട്ടാണ് ഞാൻ ബൈക്കിലാണ് കൂടുതൽ യാത്രയും അപ്പോ അതുകൊണ്ടാണ് ഞാൻ പവർ ബാങ്ക് വാങ്ങാനുള്ള ഒറ്റ കാരണം വാങ്ങിയത് ഇരുപതിനായിരം റുപ്പികയും പോയി ഫോണും പോയി ബൈക്കിൽ ചാർജ് ചെയ്ത് കൊണ്ട് നിൽക്കുമ്പോൾ ചാർജ് വേഗം പോയി ബാറ്ററി വീക്കാവുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു